ഹലോ ആ ഞങ്ങൾക്ക് ഒരു വസ്തു വാങ്ങിക്കണമായിരുന്നു ഞങ്ങൾക്ക് കൊല്ലം സൈഡിലേക്കാണ് മേടിക്കേണ്ടത് കൊല്ലം അതേ കൊല്ലത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലം റൂട്ട് നമ്മള് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് ആ ടൗണിലിൽ നിന്ന് നല്ല വസ്തു വേണം ഉള്ളിലോട്ടുള്ള വസ്തു ഒന്നും വേണ്ട വണ്ടിയൊക്കെ വരുന്ന ഇടത്ത് വേണം ആ എന്നാലേ എന്തോ ഒര് സെൻറ്റിന് എത്രവെച്ച് ആകും ഞങ്ങൾക്ക് ഒര് വീട് വെക്കാൻ അഞ്ച് സെൻറ്റ് മതി ആ ഒര് വീട് വെക്കാനായിട്ടുള്ള ഒത്തിരി ഭൂമിയൊന്നും വേണ്ട ഒത്തിരി ഭൂമി മേടിക്കണമെങ്കിൽ ഒത്തിരി പൈസയാകത്തില്ലേ റോഡ് സൈഡില് അല്ല നമുക്ക് പത്ത് സെൻറ്റ് മേടിക്കണമെങ്കിൽ ഒര് സെൻറ്റിന് എത്രവെച്ചാകും എന്ന് പറ അതനുസരിച്ച് നമുക്ക് പറയാം വണ്ടി ചെല്ലും എന്തായാലും ഒത്തിരി ഉള്ളിലോട്ട് വേണ്ട ആ ഒര് സെൻറ്റിന് ആ ഒരുപാട് പൈസയാകും മ്മ് നമ്മളുടെ എന്തായാലും നമുക്ക് പിന്നേ നിങ്ങള് ബ്രോക്കറായപ്പോൾ നമുക്ക് വില കുറച്ചൊക്കെ മേടിച്ച് തന്നു കൂടെ ആ അതൊക്കെയുണ്ട് എസ്റ്റിമേറ്റ് തോന്നിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എന്തായാലും നമുക്കൊര് ഇത് പറ അങ്ങനെ മാറി മേലെ പോകും ആ ആ ആ ആ വണ്ടി മിറ്റത്ത് വരും ആ ആ അതെ അതെ അതെ അതെ ഓ ഓ ഓ

ആ ആ അപ്പോൾ നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ നാല് എന്നുള്ളത് മൂന്ന് ലക്ഷം വെച്ച് മേടിച്ച് തരണം പത്ത് സെൻറ്റ് മേടിക്കാം ആ അതേ ആ ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നോക്കിയിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് തീരുമാനിക്കാം അത് വേറെ സത്യം നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം ആ ആ ആ അതെ ഇപ്പോൾ ഇത്തിരി ഇപ്പോൾ ആർക്കും വസ്തുക്കളൊന്നും വേണ്ടല്ലോ വസ്തു ഒക്കെ ഇഷ്ടംപോലെ ഇടത്തുണ്ട് ആ ആ അല്ലാത്ത വസ്തുവിന് ഇപ്പോൾ നമുക്ക് വില ഇല്ലിപ്പോൾ ആർക്കും വേ ഇഷ്ടം പോലെ എടുത്ത് വീടും സ്ഥലം റോഡും സ്ഥലവേ ഇഷ്ടം പോലെ വീടും വസ്തുവൊക്കെ കൊടുക്കുന്നുണ്ട് ആ ആ അതെ അതെ അതെ അതെ ഒത്തിരിയുണ്ട് അതാ ഞാന്

ആ ആ കാണിച്ച് നമുക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് പോലെ നമുക്ക് അന്നേരം വാങ്ങുമ്പോൾ വില തീരുമാനിച്ച് നമുക്കെടുക്കാം അതാ പറഞ്ഞത് ഞാന് വരാമെന്ന് വന്ന് നമ്മള് കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നമ്മൾ എടുക്കുന്നത്

ആ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ശരി ശരി ശരി ആ ശരി ശരി ശരി